എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്ന കളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും കുട്ടിയും ആയിരുന്നു ചെറിയ ചിരട്ടയൊക്കെ കൊണ്ട് വന്നിട്ട് പിന്നെ എന്താ പറയുക ചിരട്ടയൊക്കെ വെച്ച് വീട്ടിലെ സാധനങ്ങളും കോവയ്ക്കയുണ്ട് കോവയ്ക്ക പണ്ട് തൊടിയിലിങ്ങനെ സൈഡിൽക്കൂടെയൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങള് അമ്മയും കുട്ടിയും കളിക്കുമായിരുന്നു പിന്നെ കക്ക് കളിക്കും കക്ക് കളിച്ചാൽ കടം കയറുമെന്നൊക്കെ പറയും പക്ഷെ കക്ക് കളിക്കും കക്ക് കളിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ കക്ക് ഇടുന്ന കള്ളി ചവിട്ടാതെ പിന്നെ ഞൊണ്ടി ഞൊണ്ടി പോവണം എന്ന് അല്ലാതെ അതിൽ ചവിട്ടുകയാണെങ്കിൽ നമ്മളിതാവും പിന്നെ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ നെറ്റിയില് കക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ പോകും അപ്പോൾ കക്ക് നിലത്ത് വീണാലും നമ്മൾ ഔട്ട് ആവും പിന്നെ കുളം കര കളിക്കും പിന്നെ സാറ്റ് കളിക്കും അങ്ങനെ കുറെ കളികൾ കളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പിന്നെ ചില ചില നിയമങ്ങളുണ്ട് സാറ്റ് കളിക്കുമ്പോൾ ആരാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുമല്ലോ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന ആളായിരിക്കും അടുത്ത പ്രാവശ്യം എണ്ണേണ്ടത് അങ്ങനെ ഒക്കെയായിരുന്നു സാറ്റൊക്കെ കളി അങ്ങനെ നല്ല നല്ല ഒരു മെമ്മറിയാണത്